ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫ്രണ്ട്സിനോടൊപ്പം ഉള്ള സമയങ്ങളും അതുപോലെതന്നെ ഞാൻ ഫ്രണ്ട്സിനൊപ്പം ചിലവഴിക്കുന്ന സ്പെൻഡ് ചെയ്യണ ടൈമുകൾ ടൈമുകളും ആ അവരോടൊപ്പം ഞാൻ ഹാപ്പിയായിരിക്കുന്ന കാര്യങ്ങളും അതൊക്കെയാണ് ഞാൻ കൂടുതലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടാറുള്ളത് പിന്നെ ചില ആളുകൾ അതൊക്കെ കാണുമ്പോഴേക്കും മെസ്സേജുകൾ അയക്കുകയും അവരുമായിട്ട് കൂടുതൽ കൂട്ടുകൂടാനായിട്ടൊക്കെ സാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്യ ജില്ലകളിലുള്ള ആളുകളൊക്കെ ആയിട്ട് കൂട്ടുകൂടാനും ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ സാങ്കേതിക വിദ്യകൾ ഒരുപാട് സഹായകരമായിട്ടുണ്ട് ഫോണൊക്കെ ഒരുപാട് സഹായകരമായിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു ദേശത്ത് എവിടെയെങ്കിലുമൊക്കെ കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കഴിയുമ്പോൾ മറ്റു സ്ഥലങ്ങളിലെ ആളുകളുമായിട്ട് കൂടുതൽ കോൺവേർസേഷനൊന്നും നമുക്ക് ഇപ്പോൾ ഫോണുണ്ടായതിൽപ്പിന്നെ നമ്മളങ്ങനെ കൂടുതൽ അന്യ രാജ്യങ്ങളിലെ ആളുകളെ ഒന്നും നമുക്ക് അന്യ ജില്ലകളിലെ ആളുകളെയൊന്നും നമുക്ക് കൂടുതൽ പരിചയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല നേരത്തെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തപാൽ കേന്ദ്രീകൃതമായൊരു സാഹചര്യം നിലനിന്നിരുന്നു എങ്കിൽപ്പോലും പ്രിയപ്പെട്ടവർക്ക് പോലും ചുരക്കം ചില കത്തുകളയക്കുക കമ്പിയടിച്ച് കത്തുകൾ അയക്കുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളു എന്നാൽ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ കടന്നു വന്നതോടുകൂടി സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടുകൂടിയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളെ കാണാനും കണ്ടുകൊണ്ടു സംസാരിക്കാനോ എവിടെയുള്ള ആളുകളും ആയിട്ടുണ്ടെങ്കിലും അവർ അവരോട് കമ്മ്യൂണിക്കേഷൻ നടത്താനും അവരുമായിട്ടൊരു സൗഹൃദം നിലനിർത്താനുമൊക്കെ ഈ ഒരു ഫോൺ വന്നതുകൊണ്ടുതന്നെ സാധ്യമാകുന്നുണ്ട് അതുപോലെതന്നെ ഫോണിൽ തന്നെ വിവിധ വിവിധ സാമൂഹ്യ മാധ്യമങ്ങൾ നിലവിലുണ്ട് ആ ഏത് സാമൂഹ്യ മാധ്യമങ്ങൾ വേണമെങ്കിലും ഓരോരുത്തർക്ക് പ്രിയപ്പെട്ടതായിട്ട് വിവിധ സാമൂഹ്യ മാധ്യമങ്ങളായിരിക്കും നിലനിൽനിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് ട്വിറ്ററ് വാട്സപ്പ് അങ്ങനെ നിരവധി സാമൂഹ്യ മാധ്യമങ്ങൾ നില നിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ അതിൽ ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട സാമൂഹ്യ മാധ്യമം വ്യത്യാസങ്ങൽ ആദ്യ കാലങ്ങളിൽ വാട്സ്ആപ്പ് മാത്രം ഉപയോഗിച്ചിരുന്ന ജനസമൂഹം ഇന്ന് വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമാണ് ഉപയോഗിക്കുന്നത് പുതിയ പിള്ളേർ പുതിയ തലമുറയിലെ പിള്ളേർ എന്നാലാദ്യ കാലങ്ങളിൽ ഫേസ്ബുക്കുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാലിന്ന് അതൊരു പഴയ തലമുറയ്ക്കുവേണ്ടി ഒതുക്കപ്പെട്ട നിലയിലേക്ക് അത് പുറം തള്ളുകയാണ് ചെയ്യുന്നത് എങ്കിൽപ്പോലും ആദ്യകാലങ്ങളിൽ ഫേസ്ബുക്കിൻ്റെ കാലം തൊട്ട് ഇന്നുവരെ ഉള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ കാലംവരെ ആയിരുന്നാൽപ്പോലും ഒരുപാട് സൗഹൃദയങ്ങൾ സൗഹൃദങ്ങൾ ഈ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുന്നുണ്ട് അതുപോലെതന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ഭാഗങ്ങളിലെ ജനങ്ങളിൽ കാണാതെ തന്നെ അവരുമായിട്ടൊരു ആത്മബന്ധം പുലർത്താൻ തന്നെ സാധിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ കൂടുതൽ ഇടപെടലുകളൊക്കെ ഉണ്ടാക്കാൻ സാങ്കേതികവിദ്യ ഒരുപാട് സഹായകരമായിട്ടുണ്ട് സ്വകാര്യതയെക്കുറിച്ച് ആദ്യ കാലങ്ങളിലൊക്കെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് ട്വിറ്ററ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ ആദ്യ കാലങ്ങളിൽ സ്ത്രീകളുടെ ചിത്രങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ദുരുപയോഗപ്പെടും എന്നൊരു ഒരു ചിന്ത കാര്യങ്ങളൊക്കെ ആദ്യ കാലങ്ങളിൽ നിലനിന്നിരുന്നെങ്കിൽപ്പോലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കാരണം ഒരുപാട് സെക്യുറായിട്ടാണ് ഓരോ സാമൂഹ്യ മാധ്യമങ്ങളുമിന്ന് നിലനിൽക്കുന്നത് ഓരോ അപ്ഡേറ്റുകൾ കഴിയും തോറും അത് കൂടുതൽ സെക്യുവറായിട്ട് അതിനെ സൂക്ഷിക്കാനാണ് ഓരോ സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ആദ്യ കാലങ്ങളിൽ സ്ത്രീകൾ ഒരു ഫോട്ടോ ഇടാൻ പോലും പേടിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് മോഡലിങ്ങും അതുപോലെ തന്നെ വീഡിയോ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫി അങ്ങനെ ഒരുപാട് മേഖലകൾ സ്ത്രീകൾ അവരുടെ ഫോട്ടോകൾ എടുക്കുകയും അതുപോലെതന്നെ അവരുടെ കായികമായിട്ടുള്ള കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാനൊരു ഒരു മേഖലയായിട്ട് സാമൂഹ്യ മാധ്യമത്തെ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് സ്ത്രീകൾ ഒരുപാട് മുന്നോട്ട് കടന്നുവരുന്നൊക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ പണ്ടത്തേതിൽ അപേക്ഷിച്ചിട്ട് സ്വകാര്യതയെക്കുറിച്ച് പണ്ട് സ്ത്രീകൾ പേടിച്ചുനിന്ന് അപേക്ഷിച്ച് ഇന്ന് ഒരുപാട് പേടികളൊക്കെ കുറയുന്നുണ്ട് പിന്നെ സൈബർ ലോകമെന്നു പറയുന്നത് സൈബർ കുറ്റവാളികളെ അങ്ങനെ വെറുതെ സൈബർ കുറ്റവാളികൾ ഒരുപാട് പെരുകാനൊന്നും ഇടവരുത്താറില്ല നേരത്തെ അപേക്ഷിച്ച് ഇപ്പം സൈബർ കുറ്റവാളികളൊക്കെ വളരെ അധികം ഭയപ്പെടുന്നതിനെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനും അതുപോലെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനുമൊക്കെ ഏറ്റവും സേഫായിട്ടുള്ള മാധ്യമമായിട്ട് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളെ കണ്ടുവരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരും അവനവൻ്റെ നിത്യ ജീവിതത്തിലെ സംഭവങ്ങളാണ് കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്റ്റോറിയായിട്ട് സ്റ്റാറ്റസായിട്ടും വെക്കാറുള്ളത് കാരണം തൻ്റെ ജീവിതത്തിൽ നടത്തപ്പെടുന്ന ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തങ്ങൾ സമൂഹത്തിൽ ആ ഒരു സോഷ്യൽ മീഡിയയിലെ തൻ്റെ ബാക്കിയുള്ള സുഹൃത്തുക്കളും കൂടി പങ്കിടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെതന്നെ ബാക്കിയുള്ള അവരുടെ അവർ സ്വന്തമായിട്ട് എടുക്കുന്ന അവരുടെ ഏറ്റവും മനോഹരമായ ഫോട്ടോസാണവർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത് അവരുടെ സുഹൃത്തുക്കൾക്കു വേണ്ടി പങ്കു വയ്ക്കുന്നത്